പട്ടണങ്ങളിലുള്ള കളികൾ എന്ന് പറഞ്ഞാല് എപ്പഴും നല്ല ഉന്നത നിലവാരങ്ങള് പുലർത്തുന്ന കളികളാണ് പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വരുമ്പോഴ് കളികൾ താരതമ്യേനെ അതിന്റെ അതിന് അതിന്റെതായ ഒരൂ മേന്മ പലപ്പോഴും കാണാറില്ല എന്ന് പറഞ്ഞാല് അതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ പട്ടണങ്ങളിലുള്ള കളിക്കാരൊക്കെ വെച്ചാൽ അതിന്റെതായ മികച്ച ആ ട്രെ കോച്ചിങ്ങും അതുപോലുള്ളതായ ഇപ്പം ഉദാഹരണത്തിന് പറയുവെങ്കില് ട്രാക്ക്കള് ട്രാക്കിലുള്ള കളികൾ ആണെങ്കിൽ അതിനുള്ളതായ നല്ല നല്ല ട്രാക്കുകളും ഇനി ഗ്രൗണ്ടുകള് നല്ല ഗ്രൗണ്ടുകള് സിന്തറ്റിക് ഗ്രൗണ്ടുകൾ ഒക്കെ ഉണ്ട് പക്ഷേ ഗ്രാമങ്ങളിലോട്ട് വരുമ്പഴ് പലപ്പോഴും നല്ല ഗ്രൗണ്ട് കളിസ്ഥലങ്ങള് പോലും ഇല്ല കുട്ടികൾക്ക് അവർ പലപ്പോഴും റബർ തോട്ടത്തിലും റോഡിലും ഒക്കെ കിടന്ന് കളിക്കുന്ന കളികളാണ് പലപ്പോഴും കാണാൻ സാധിക്കുന്നത് പിന്നേ പ്രത്യേകിച്ചും നല്ലൊരു പരിശീലനം കിട്ടാത്തത്തിന്റെ ഒരൂ ഒര് പോരായ്മ ഗ്രാമ പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കുണ്ട് പിന്നേ പലപ്പോഴും അർഹതപ്പെട്ടവർക്ക് പല അതിന്റെതായ രീതിയുള്ള അംഗീകാരം കിട്ടാതെ പോകുന്നുണ്ട് ഗ്രാമങ്ങളിലൊക്കെ പട്ടണങ്ങളിലൊക്കെയുള്ള കളികളിൽ ഒക്കെ മിക്കവാറും അതൊക്കെ ലഭിക്കുകയും അങ്ങനെ വലിയ ഒരു അന്തരം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്